ഹലോ ബാംഗ്ലൂരുളള ബാങ്ക് അല്ലേ എനിക്കൊരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനാണ് അതിന്റെ പലിശയൊക്കെ എങ്ങനെയാണ്

ഒരു വർഷത്തേക്ക് ഇട്ടാൽ ആ ആറുമാസം ആണെങ്കിൽ അതു കുറഞ്ഞ് കിട്ടും അല്ലേ പിന്നാ നമ്മള് അതിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാം കൊണ്ട് വരണം

ആധാറും ഉണ്ടോ ഫോട്ടോ വേണോ ബാങ്കിന്റെ ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി കോഡ് എല്ലാം ഉള്ളത് അതൊന്ന് പറഞ്ഞേ പറഞ്ഞുതരണം ഞങ്ങൾ അയച്ചു തന്നാൽ മതിയോ

ബാലൻസ് ചെക്ക് ചെയ്യാൻ ഒക്കെ പറ്റുമോ ഇടണം ആ ആ ആ ആ ഇത് അക്കൌണ്ട് തുടങ്ങണമെങ്കിൽ പുതിയ അക്കൌണ്ട് തുടങ്ങണമെങ്കിൽ എത്ര ഇതാവും ആധാർ ഫോട്ടോ എല്ലാം കൊണ്ട് വരണം അല്ലേ ആ ആ പിന്നെ ബാങ്ക് പേടിക്കാൻ ഒന്നും ഇല്ലല്ലോ ശരി താങ്ക് യൂ വരാം